അഞ്ച് എട്ട് രണ്ടായിരത്തി മൂന്ന് നാല് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരം ആറ് ഒന്ന് രണ്ടായിരത്തി ഏഴ് അഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത്